ഇപ്പോൾ ഞാൻ കൂടുതലായിട്ട് സന്ദർശിക്കാൻ ഇഷ്ടമുള്ള സ്ഥലങ്ങൾ എന്ന് ഒക്കെ പറഞ്ഞ് കഴിഞപഞ്ഞാൽ കേരളത്തിലുള്ള സ്ഥലങ്ങൾ ആണ് കൂടുതലായിട്ടും സന്ദർശിക്കാൻ ഇഷ്ടം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങൾ കാണുമ്പോൾ തന്നെ നല്ല ഒരു നമ്മുടെ മനസ്സിന് നല്ല കുളിർമയും അങ്ങനത്ത കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകും ഇപ്പോൾ കൂടുതലായിട്ടും ഞാൻ കാണാറുള്ള സ്ഥലങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ കേരളം തന്നെയാണ് കേരളത്തിലെ പല ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഓരോന്നായിട്ട് ഓരോ വ്യത്യസ്ത തരം ഭാഷയും കാര്യങ്ങളൊക്കെ ആണ് അപ്പം നമ്മുടെ ഇവിടെ ഉള്ള മലയാളം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ജില്ലകളിൽ ഇപ്പോൾ തിരു തൃശ്ശുർ പോയി കഴിഞ്ഞാൽ അവിടുത്തെ സ്ലാങ്ങ് വേറെ ആയിരിക്കും ഇപ്പം അവിടെയൊക്കെ പറയുന്നത് എന്താണെന്നു വെച്ചുകഴിഞ്ഞാൽ എന്താ ഗടിയെ അങ്ങനെ ഒക്കെ ആയാണ് സംസാരിക്കുക അപ്പോൾ അത് ഒക്കെ കേൾക്കാനും അവിടുത്തെ പൂരം കാണാനും എനിക്ക് ഭയങ്കര താത്പര്യം ഉള്ളതാണ് പിന്നെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആ നടയൊക്കെ കാണാനും ഒരു ഭയങ്കര ആഗ്രഹം ആണ് പിന്നെ കന്യാകുമാരി അങ്ങനെ ഉള്ള സ്ഥലങ്ങൾ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം ആണ് കാരണം ഈ കടൽ അങ്ങനെ ഒക്കെ എന്താ പറയുക ഒരു വെറൈറ്റി ആണ് നമ്മൾ ഇപ്പോൾ ഇവിറ്റെ നിന്ന് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഒക്കെ ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നല്ല ഒരു ഭംഗി ആയിട്ട് ഒക്കെ പോണെങ്കിൽ സെറ്റ് ആയിരിക്കും കാരണം നമുക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ ട്രാവൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണ് കൂടുതലും ഇഷ്ടം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും